ഹലോ ഒലെ ഊബറല്ലേ ആ എനിക്ക് ഇന്ന് കോഴിക്കോടൊന്ന് മിഠായി തെരുവ് വരെ പോകണമായിരുന്നു ആ പോകണമായിരുന്നു ആ ഇപ്പം ഈ സമയത്ത് ഒരു ഏഴരയൊക്കെ ആകുമ്പോഴേക്കും വരാൻ പറ്റുവോ ആ ഞാൻ ഇപ്പം ഉള്ളത് ടൗണിലാണുള്ളത് കോഴിക്കോട് ആ ടൗണിൽ തന്നെയാണുള്ളത് ആ നിങ്ങള് വേഗം വരുമോ അല്ല എത്ര സമയം എടുക്കുവായിരിക്കും ആ ഓക്കെ ആ ഞാൻ ഇവിടെത്തന്നെ നിൽക്കാം കുറച്ച് ലഗേജ്ണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് ബസ്സിന് പോകാന് പറ്റത്തില്ല ആ ഓക്കെ അപ്പം എത്രയാണ് കൂലി വരുന്നത് വന്നിട്ട് ആ ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്യാം ഒന്ന് പെട്ടന്ന് വരുമോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ ഇവിടത്തന്നെ നിൽക്കാം നിങ്ങള് എത്താറാകുമ്പം ഒന്ന് കോള് ചെയ്യൂ കെട്ടോ ഓക്കെ ശരി എന്നാൽ